ഞാനങ്ങനെ ഒരുപാട് വരയ്ക്കുന്ന കൂട്ടത്തിൽ പെട്ട ആളല്ല എനിക്ക് തോന്നുന്ന് വെച്ചാല് എനക്ക് ചില ദിവസങ്ങളിലൊരിഷ്ടാകും അത് വരയ്ക്കണം അല്ലെങ്കിൽ ഒരു ചിത്രം കണ്ടാൽ അതൊന്ന് വരച്ച് നോക്കാം എന്നുള്ളൊരു എന്നുള്ളൊരു പ്രചോദനമാണ് വരുന്നത് അല്ലാതെ വേറെ പ്രചോദനകളൊന്നും വരുന്നില്ല പിന്നെ എല്ലാ ദിവസവും വരച്ചിരിക്കൊന്നുമില്ല മറ്റുള്ള ജോലിയും ഇതും കൊണ്ടോന്നു വെച്ചാൽ ഏതു സമയവും നമ്മള് വരച്ചിരിക്കില്ല ഏതെങ്കിലും ഒരു സമയം നമ്മളൊഴിവ് സമയം നോക്കിയിട്ടേ വരയ്ക്കാനിരിക്കുള്ളൂ നമ്മളിപ്പം ഒരു ചിത്രം കണ്ടാലത് വരയ്ക്കണെന്ന് തോന്നിയാലത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ജോലികളൊക്കെ കഴഞ്ഞതിന് ശേഷം നമ്മള് വരയ്ക്കാനിരിക്കും അപ്പോൾ ഒരു ഒഴിഞ്ഞ റൂമില് പോയിരുന്ന് അത് നോക്കി വരച്ച് നമ്മുടെ ഒരു സമയം ഒരു നല്ലസമയമൊക്കെ എടുത്ത് വരച്ച് തീർക്കുകയാണ് ചെയ്യാറ് ദിനചര്യയില് മറ്റ് ജോലികളൊഴിവാക്കി ചെയ്യണ്ട ആ ആവശ് ചെയ്യണ്ട ഒരു ഒരു സമയമൊന്നും വന്നിട്ടില്ലിതുവരെ പിന്നെ എല്ലാ ദിവസോന്നും വരക്കില്ല ഇടക്കൊക്കേ വരക്കുള്ളൂ